അതേ ഞാൻ ജ്യോതിലക്ഷ്മിയാണേ ഞാൻ ഓമല്ലൂരിൽ നിന്നാണ് ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് നിങ്ങളുടെ ഏജൻസിയിൽ നിന്ന് ഒരു ടാക്സി വിളിച്ചിരുന്നു അന്ന് ബസ് ഒന്നുമില്ലാത്തതിനാൽ രാത്രിയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുവാൻ നിങ്ങളുടെ കമ്പനിയിൽനിന്നും ഒരു ടാക്സി ബുക്ക് ചെയ്തു അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു കാരണം അത്രയും വൈകി രാത്രി പതിനൊന്നരയായിരുന്നു എന്നിരുന്നാലും എന്നെ സുരക്ഷിതമായി വിടുകയുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടോ എന്ന് സംശയമാണ് അതിൽ ഞാൻ ഇപ്പോൾ സംതൃപ്തയാണ് നിങ്ങളുടെ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ടാക്സി വിളിക്കാൻ ഞാൻ റെക്കമെൻറ്റ് ചെയ്യുന്നതാണ് താങ്ക് യൂ